പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് രണ്ടായിരത്താറ് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി പത്ത് ഇരുപത്തി മൂന്ന് പൂജ്യം ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് പൂജ്യം ഒമ്പത് പൂജ്യം എട്ട് രണ്ടായിരത്തിപ്പതിനേഴ് ഇരുപത്താറ് പൂജ്യം ഒമ്പത് രണ്ടായിരത്തി മൂന്ന്